ചേട്ടാ നിങ്ങളവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കുമോ അതേല്ലേ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പെട്ടന്നവിടെ എത്തണം ആഹ് ലേ ഭയങ്കര മോശാണല്ലോ റോഡൊക്കെ ഈ റോഡിക്കൂടെ നമ്മളവിടെ എത്തുമ്പോഴേക്കും സമായാവൂലേ നമുക്കവിടെ പത്തുമണിക്കാണ് ഇന്റർവ്യൂ ഇപ്പം തന്നെ സമയം ഒമ്പത് മണിയായി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തുമോ ആഹ് റോഡിൻ്റെ അവസ്ഥ മോശാണ് ഈ റോട്ടീ കൂടെ തന്നെ നമ്മള് പോകും വേണം നമക്ക് വേറെ റൂട്ടൊന്നൂല്ലാ എളുപ്പം പോകാൻ ആഹ് അപ്പറത്തെ വഴീ പോയി ചുറ്റി കഴിഞ്ഞാൽ നമ്മക്ക് വീണ്ടും അവിടെ പോകേണ്ടി വരും ലേ ഓ നല്ല ദൂരം എടുക്കുന്നോണ്ടാ അവടെ റോഡ് മോശമായത് കൊണ്ടാണ് ഇവടെത്തേക്കാളും മോശമാണോ അവിടത്തെ റോഡ് അല്ലേ ചേട്ടാ എത്രയും പെട്ടന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുവോ എനിക്ക് ഒരു അര മണിക്കുറിനുള്ളിലോ മുക്കാൽ മണിക്കുറിനുള്ളിലോ അവിടെ എത്താൻ പറ്റിയാൽ ഭയങ്കര ഇതാ സഹായാവും ആഹ് അവിടെന്ന് എനിക്ക് കുറച്ച് കൂടി ഉളളിലോട്ട് പോകാനുണ്ടേ അപ്പം അവിടന്നാ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും കടത്തിവിടില്ലാന്ന് തോന്നുണു അവടെ നടന്ന് പോകേണ്ടി വരും അവിടന്ന് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടന്നിട്ട് വേണം അപ്പുറത്തേക്ക് ഓട്ടോ പിടിക്കാൻ അപ്പം ആ അവിടെ എത്താൻ വേറെ വഴിയൊന്നുമില്ലല്ലോ അതേയോ അപ്പോൾ അവിടെ എത്തുന്നുണ്ടേൽ കുറച്ച് നേരത്തേ എത്തിയാലല്ലേ അവിടെ നടക്കേണ്ട പിന്നെ അവിടന്ന് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ നാപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കാന്ന് പറയുമമ്പോൾ പെട്ടന്ന് വിടുമോ ചേട്ടാ ഒരു നാപ്പത് മിന്റ്റ് നാ മുപ്പത്തഞ്ച് മിന്റ്റില് വിട്ടാൽ ആ അതെല്ലേ അതാണ് അവടെ എത്തുമ്പോൾ തന്നെ ഒരു മുക്കാൽ മണിക്കുറാവും ലേ അവിടെ എത്തുമ്പോൾ ആ അവിടുന്ന് നമക്ക് ഓട്ടോ ഒക്കെ കിട്ടില്ലേ അങ്ങോട്ടേക്ക് പോകാൻ കിട്ടുമല്ലോ അല്ലേ അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ആഹ് ശരി